പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്ന് തന്നെ പറയും കാരണം കാരണം ഇല്ല എന്ന് നമുക്ക് ഒരി ഒരിക്കലും തീർത്തു പറയാൻ കഴിയില്ല അതുപോലെ ഉണ്ടെന്നും പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശാസ്ത്രം നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന് ഒരു അറ്റം ഇല്ല അതിന് ഒരു ആരംഭവുമില്ല അതുപോലെ ഒരു അവസാനവും ഇല്ല കാരണം കാരണം ഈ പ്രപഞ്ചം അത്രയും വലുതാണ് നമ്മുടെയെല്ലാം സങ്കൽപ്പങ്ങൾക്കും അതീതമാണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൽ തന്നെ ഭൂമി ഉൾപ്പെടുന്നത് ചെറു ചെറിയ ഒരു ഗാലക്സിയിൽ മാത്രമാണ് അപ്പോൾ ഭൂമി ഉൾപ്പെടുന്ന നമ്മുടെ സോളാർ സിസ്റ്റം ചെറിയൊരു ഗ്യാലക്സിയിൽ മാത്രമാണ് ഉൾപ്പെടുന്നതെങ്കിൽ അങ്ങനത്തെ പന്ത്രണ്ടായിരം കോടി ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നുള്ള ശാസ്ത്രം ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ വലുപ്പം നമ്മൾ ഒക്കെ വിചാരിക്കുന്നതിനും അപ്പുറത്തിന്റെ അപ്പുറം ആയിരിക്കും അതുകൊണ്ടുതന്നെ അതിൽ ഭൂമിയുടെ കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ കാരണം ഭൂമിയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഭൂമി അതുകൊണ്ട് തീർത്തും എനിക്ക് എൻ എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ഭൂമിയിൽ മറ്റ് എവിടെയെങ്കിലും ജീവൻ ഭൂമിയിൽ എന്നല്ല പ്രപഞ്ചത്ത് മറ്റ് എവിടെയെങ്കിലും ഒരു ജീവന്റെ അംശമുണ്ടാവും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രം ഒരു ജീവൻ്റെ അംശം ഭൂമിയിൽ മാത്രമായിരിക്കില്ല കാരണം ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ വേറെ ഇഷ്ടം പോലെ സ്ഥലത്ത് ജീവന്റെ അംശം ഉണ്ടാകും പക്ഷേ അതിനൊന്നും നമ്മുടെ ശാസ്ത്രം നമ്മുടെ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ